സാങ്കേതിക വിദ്യയിൽ പുരോഗതി ഒരുപാടുണ്ട് കാരണം പണ്ടൊക്കെ നമ്മൾ നമ്മുടെ തുണി നമ്മൾ തന്നെ അലക്കണമായിരുന്നു ഇല്ലെങ്കിൽ പണ്ടൊക്കെ അലക്കാൻ ഈ കയ്യൊക്കെ ഒടിഞ്ഞവരും കൈ പറ്റാത്തവരൊക്കെ അലക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്നവർക്ക് ഇപ്പോഴത്തെക്കാലത്ത് ഈ വാഷിംഗ് മെഷീൻ എന്നു പറയുന്നത് ഒരുപാട് ഉപയോഗപ്പെടുന്നുണ്ട് പിന്നെ അതേപോലെതന്നെ പണ്ടു കാലങ്ങളിൽ ബാങ്കുകളിൽ പോയിട്ട് വേണമായിരുന്നു ക്യൂ നിന്നു വേണമായിരുന്നു പൈസ എടുക്കാൻ ഇപ്പം നമ്മുടെ ടച്ചിന്റെ ഫോണുകളിൽ വച്ച് തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വേറെയാൾക്ക് പൈസ ഇട്ടു കൊടുക്കാനും പൈസ വാങ്ങാനും കഴിയുന്നുണ്ട്